ഇന്നത്തെ കാലത്ത് കൂടുതലും ക്ലാസിക് പരമായിട്ടുള്ള നൃത്തങ്ങളാണ് കൂടുതലും തെരഞ്ഞെടുക്കുന്നത് കുട്ടികളെയാണെങ്കിലും വലിയവര്പോലും ക്ലാസിക് നൃത്തത്തിലൂടെ ന ക്ലാസിക്കിലാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം അങ്ങനെയുള്ള നൃത്ത കലാപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതലും ആൾക്കാര് ചെല്ലുന്നത്

ഇങ്ങനെയുള്ള ഡാൻസുകള് തെരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം തന്നെ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളുണ്ടല്ലോ ന നമുക്കാണേലും കുട്ടികൾക്കാണെലും പകർന്നുകൊടുക്കുന്ന ഇങ്ങനെ ശരീരത്തിനാണെലും എക്സസൈസിന് എക്സസൈസാകും നല്ല നല്ല കാര്യങ്ങള് നല്ല നല്ല രീതിയില് ചെയ്യുമ്പോള് നമ്മുടെ ആരോഗ്യപ്രശ്നങ്ങൾക്ക് പോലും ഏറ്റവും നല്ലതാണ് ഡാൻസ് ഡാൻസിൽ എറ്റവും നല്ലത് വ്യായാമത്തിൻ്റെ ഒരു പ്രഥ പ്രത്യേകത കൂടിയുണ്ട് ഇതിൽ പറയണമല്ലോ ഇപ്പോള് മരുന്നും ഒക്കെ കഴിക്കുന്ന ഈ കാലത്ത് ഒരുപാട് ശ ശരീരത്തിന് നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഒന്നാണ് ഈ നൃ നൃത്തം എന്നു പറയുന്നത് അപ്പോള് ആൾക്കാർ കൂടുതലും കലാകായിക ഇതില് പോകുന്നതിലും വലിയ അതിശയമൊന്നും പറയാനില്ല കുട്ടികളെ ആണെലും വലിയൊരു പോലും ഇപ്പോള് വലിയ വലിയ വലിയോരു പോലും ഇപ്പോള് ക്ലാസിക് പരമായിട്ട് ഉള്ള രീതിയിലേക്കാണ് പോയിരിക്കുന്നത്